എൻ്റെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഫോൺ ആണ് ഫോണിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മള് സാധാരണ ഇപ്പോൾ ആർക്കായാലും ഫോണില്ലാണ്ടു ജീവിക്കാൻ പറ്റുകയില്ല പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിന് ഉപയോഗം എന്താണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ എന്താ പറയുക ചോറ് കൊടുക്കാൻ വരെ ഫോണാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര ദൂരം ഉള്ള ആളാണെങ്കിലും നമുക്ക് ഫോണിലൂടെ എളുപ്പത്തിൽ തന്നെ അയാളോട് സംസാരിക്കാൻ ഒക്കെ പറ്റും അതാണ് ഫോണിൻ്റെ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഫോണില് നമ്മള് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പോൾ എത്ര ദൂരയാണെങ്കിലും മറ്റൊരാളുമായിട്ട് സംസാരിക്കാൻ നമുക്കിപ്പോൾ ഈ ഫോണ് മാത്രം മതി പിന്നെ അതില് നമുക്ക് ഇപ്പോൾ കിട്ടാത്ത കാര്യങ്ങളായിട്ട് ഒന്നുമില്ല വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അതിനകത്ത് പിന്നെ ഇതിലേക്ക് എന്ന പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഉപയോഗം തന്നെയാണ് സമൂഹത്തില് എന്തൊക്കെ നടക്കുന്നോ ആൾക്കാരെ പറ്റി കൂടുതൽ അറിയാനും എല്ലാത്തിനും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴി മനസിലാക്കാൻ കഴിയും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിങ്ങനൊക്കെയാണ് ഉള്ളെതെന്നാണ് എൻ്റെയൊരു നിഗമനം